ഞാൻ പുതിതായിട്ടൊരു പാചകം ചെയ്യുമ്പൊഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ എന്റൊരു സുഹൃത്തിനെ വിളിക്കും സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കാറ് ആദ്യത്തെ കാലത്തൊന്നും നമുക്ക് ഈ യുട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലലോ ചെറിയൊരു ഫോണാണ് ഇണ്ടാവാ അപ്പോൾ അതിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും വിളിക്കാറ് കൂട്ടുകാരനെ ആണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ വിളിക്കും എന്നിട്ടാണ് നമ്മൾ പാചകം ചെയ്യുക അപ്പോൾ അതിലും അപ്പോൾ അതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അതാണെങ്കിൽ നമുക്ക് എന്ത് കാര്യമിണ്ടേലും നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം അവരോട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അപ്പോൾ ആ ഒരു ഇത് ഉള്ളോണ്ട് അതാണ് നല്ലതിന്ന് എനിക്ക് തോന്നി അപ്പോൾ അതൊരു നല്ല അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് അവരോട് അഭിപ്രായം ചോദിക്കുക നമ്മളിപ്പൊരു സ്കൂൾലക്കെ പഠിക്കുവാണെങ്കിൽ നമ്മൾ ടീച്ചർമാരിടടുത്ത് സംശയക്കെ ചോദിക്കുന്നപോലെ അവരിടടുത്ത് നമുക്ക് സംശയം ചോദിക്കാം അപ്പോൾ അവർ വേറെ രീതിയിൽ കാണുകയും ഇല്ല നമുക്ക് നല്ല രീതിയിൽ പാചകം പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ സ്വന്തം പരിചയക്കാരെ വിളിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ അറിയാതൊരാളെ വിളിക്കുന്നതിലും നല്ലത് നമ്മൾ സ്വന്തം പരിചയക്കാരെ വിളിക്കാനാണ് താൽപര്യം കൂടുതൽ കാരണം എന്താ വെച്ചാൽ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് തരും എല്ലാ കാര്യങ്ങളും ചെയ്തും തരാറുണ്ട് അപ്പോൾ അതാണ് കുറച്ചൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്